എടാ മീനേടാ ഇങ്ങ് വന്നെടാ എടാ എൻ്റെ ഫോണിൻ്റെ റീചാർജ് തീർന്നതാണോ എനിക്ക് കറക്റ്റ് ഇതറിഞ്ഞൂടാ ഞാൻ ഒരു ആയിരത്തി എഴുന്നൂറ്ററുപത് രൂപക്ക് ജിയോ ആണ് ജിയോടെ ഒരു ആയിരത്തി എഴുന്നൂറ്ററുപത് രൂപക്ക് ഞാൻ അന്ന് റീചാർജ് ചെയ്തായിരുന്നു അത് ഏകദേശം എനിക്ക് തോന്നണത് ഒരാറേഴ് മാസത്തേക്കുള്ളതെങ്ങാണ്ടാണെന്ന് എനിക്ക് തോന്നണത് ഇപ്പം ഞാൻ റീചാർജ് ചെയ്തിട്ട് കുറച്ചായി അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഇങ്ങനൊരു മെസ്സേജ് വന്നു എന്നാ റീചാർജ് തീരാൻ പോവാ അപ്പോൾ നിങ്ങളൊന്ന് റീചാർജ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊരു മസ്സേജ് വന്നു അപ്പോൾ ഞാൻ നോക്കിയിട്ട് അഞ്ചാറ് മാസമൊന്നും ആയില്ല ഒരു മൂന്നാലു മാസം മുമ്പെങ്ങാണ്ടാ ചെയ്തായിട്ടാ എനിക്ക് തോന്നണത് എനിക്ക് അഞ്ചാറ് മാസത്ക്ക് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നണത് അപ്പം നീ അതിനെപ്പറ്റി എനിക്ക് നോക്കാവോ അതിൻ്റെ എനിക്കതിനെ അറിയാ പാടില്ല അപ്പോൾ നീ ഒന്ന് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞ് തരാവോ മെസേജസ് എടുത്തിട്ട് എന്നാ റീചാർജ് ചെയ്തത് എന്നത് അറിയണം എന്നാ റീചാർജ് ഞാൻ ജിപേല് ചെയ്തത് ജിപേല് നോക്കിക്കഴിഞ്ഞാൽ അറിയായിരിക്കും അപ്പം ആ പ്ലാന് പ്ലാൻ നോക്കാല്ലേ ജിപേലെ താൻ പ്ലാൻ നോക്കിയിട്ട് പ്ലാൻ്റെകത്ത് ആയിരത്തി ആയിരത്തിരുന്നൂറ്ററുപതിൻ്റെ ചെയ്തത് ഇത് ആ എന്നിട്ട് ഇതിൻ്റെ അത്ത് ഇത് എടുക്കാം അല്ലേ ഓക്കെ ഓക്കെ ഓക്കെ എടാ ഇത് ആറ് മാസത്തേക്കുള്ളതാണ് ഞാൻ ചെയ്തത് മെയ്യിലാണ് ഇപ്പോൾ മെയ് മുപ്പതിനല്ലെ ചെയ്തേ അപ്പോൾ അതുകൊണ്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ആ ഡിസംബറായടാ അപ്പോൾ ഏഴ് മാസായി ഏഴ് മാസത്തേക്കുള്ളതല്ലേ ഏഴ് മാസമായി അപ്പം ഞാനത് നോക്കാൻ വേണ്ടി വിളിച്ചതാട്ടോ ആഹ് ഓക്കെ